ആ ഹായ് ഇത് പിഗ്ഗി ഐസ്ക്രീം ആണ് ഓക്കെ മാം മാമിന് ഇഷ്ടപ്പെട്ട ഫ്ലേവേർസ് എന്തൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവേർസ് ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട് ചോക്ലേറ്റ് വാനില സ്ട്രോബെറി പിസ്ത പിന്നെ ബ്ലാക്ക് കറൻറ്റ് ജാക്ഫ്രൂട്ട് ടെൻഡർ കോക്കനട്ട് അങ്ങനെ കുറേ ഫ്ലേവേർസ് ഉണ്ട് മാമിന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ആ ബട്ടർസ്കോച്ച് ഉണ്ടല്ലോ ഓക്കെ മാം ഇപ്പോൾ ബട്ടർസ്കോച്ച് ആണെന്നുണ്ടെങ്കിൽ അത് ഏതൊരു വെറൈറ്റിയുടെ കൂടെയും പോവും ഇപ്പോൾ ബട്ടർസ്കോച്ച് നമുക്ക് ചോക്ലേറ്റ് ആയിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ആ കുറച്ചൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും ആ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റും അപ്പോൾ വാനില ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫ്ലേവേർസിൻ്റെ കൂടെ മിക്സ് ചെയ്യാം സ്ട്രോബെറി പിസ്ത ചോക്ലേറ്റ് എന്ത് വേണമെലും മിക്സ് ചെയ്യാം ഇപ്പം നമുക്കതിൻ്റെ റെയിൻബോ അത് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടൊരു വേറെ ഒരു ഐസ്ക്രീമിൻ്റെ പേരാക്കിയിട്ട് നമ്മളത് കൊടുക്കുന്നുണ്ട് റെയിൻബോ എന്ന് പറഞ്ഞത് റെയിൻബോ ഫ്ലേവർ ആക്കിയിട്ട് നമ്മളത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ മാം മാമിന് പിന്നെ എന്തെങ്കിലും ആഡിംഗ്സ് ചെയ്യണോ അതിൽ ആ ഞങ്ങളുടെ കൈയ്യിൽ ചെറി ഉണ്ട് പിന്നെ ഊട്ടി ഫ്രൂട്ടി ഉണ്ട് പിന്നെ ഈ കുഞ്ഞ് കുഞ്ഞ് ബോൾസ് ഒക്കെ പോലെ നമുക്ക് അങ്ങനെ ടോപ്പേഴ്സ് ഒക്കെ ചെയ്യാം ഓക്കെ പിന്നെന്താ മാമിന് ഇഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് തരാം ബുക്ക് ചെയ്ത് ഉം ഉം അതിപ്പോൾ ബട്ടർസ്കോച്ച് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത് തേർട്ടി ആണ് പിന്നെ രണ്ട് ഫ്ലേവേർസ് വരുന്നുണ്ടെങ്കിൽ നമ്മളതിന് സിക്സ്റ്റി ആണ് ചാർജ് ചെയ്യുന്നത് ടോപ്പിംഗ് ചുറ്റും ഞങ്ങൾക്ക് ഫ്രീ ആണ് ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആ അതും ആ അതെ അതെ ആ അതെ ഡെലിവറി ഉണ്ടാവും അത് നമ്മൾ ഏറ്റവും അടുത്ത് അടുത്തുള്ള ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ അത് കൊടുക്കുന്നത് ഓക്കെ പ നമ്മൾ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഡെലിവറി ചെയ്യും ഉം ഉം ഓക്കെ ശരി ഓക്കെ